എൻ്റെ വീട്ടിലേ എൻ്റെ ചാച്ചൻ പ്രഷറ് കൂടി പെട്ടന്ന് വീണ് പോയി അപ്പം സ്ട്രോക്ക് വന്നിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇരുത്തിയാൽ തന്നെ എണീറ്റിരിക്കും പക്ഷേങ്കിൽ ഒന്നും നടക്കാനൊന്നും വയ്യ ഒരു ഭാഗത്തിൻ്റെ സ്വാധീനം തീരെയില്ലാതെയായി ചാച്ചന് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചാച്ചന് എപ്പഴും പുറത്ത് പോകണം പുറത്ത് പോകണം എന്നുള്ള വിചാരവാണ് അതുകൊണ്ട് അമ്മയാണ് നോക്കുന്നതൊക്കെ അമ്മ നോക്കുന്ന സമയത്താന്ന് പറഞ്ഞാല് ചാച്ചനെപ്പഴും കടയിൽ നിക്കോട്ടിൻ്റെ അളവ് കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ സ്ട്രോക്ക് വന്നേന്നാണ് ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് അപ്പം ചാച്ചനോടെത്ര പറഞ്ഞാലും ചാച്ചനനുസരിക്കുവേല ചാച്ചനെപ്പഴും പോകണമെന്ന് പുറത്ത് പോകണം ബീഡി വലിക്കണം എന്നുള്ള വിചാരവാണ് ചാച്ചന് അപ്പം അമ്മേ അമ്മയാണ് ഇപ്പം നോക്കുന്നത് നോക്കി കഴിയുമ്പത്തേനും അമ്മയ്ക്ക് എന്തെങ്കിലൊരു കാര്യത്തിന് പോകാനോ ഒന്നും വയ്യ അപ്പം എപ്പഴും അമ്മ അടുത്ത് വേണം ചാച്ചന് അതുകൊണ്ട് അമ്മ അത്ര റിസ്ക് എടുത്താണ് ചാച്ചനെ നോക്കുന്നത് പിന്നെ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പഴത്തേക്കും ചാച്ചന് എപ്പഴും വെളുപ്പിനേ മരുന്ന് കൊടുക്കണം ഭക്ഷണത്തിന് മുൻപുള്ള മരുന്നുണ്ട് ഭക്ഷണത്തിന് ശേഷമുള്ള മരുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ചാച്ചനേ നോക്കുന്നുണ്ട് പിന്നെ ടോയ്ലെറ്റിപ്പോകാനക്കെയാന്ന് പറഞ്ഞാലും അമ്മ പിടിച്ചുകൊണ്ട് പോകും യൂറിൻ പാസ് ചെയ്യാൻ മുറിക്കകത്ത് വെച്ച് തന്നെ പാത്രം വെച്ച് കൊടുത്ത് അങ്ങനെ യൂറിൻ പാസ് ചെയ്യും ചാച്ചനേക്കൊണ്ട് അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഹോസ്പിറ്റലിൽ ഒക്കെ എട്ട് ദിവസം എട്ട് ദിവസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ ഒക്കെ കൊണ്ടുപോകണം കൊണ്ടുപോകണം ചാച്ചനെ പിടിച്ച് വണ്ടിയിൽ ഒക്കെ ഞങ്ങള് ഓട്ടോ വിളിച്ച് ചാച്ചനെ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് പോരും നടക്കാനൊന്നും തീരെ വയ്യ രണ്ട് പേര് ഇല്ലെങ്കിൽ തന്നെ ആരെങ്കിലും അമ്മ അടുത്ത് നിന്ന് മാറിക്കഴിയുമ്പം ചാച്ചൻ പെട്ടന്ന് ചാടി എണീക്കും എണീക്ക് കഴി എണീറ്റ് കഴിഞ്ഞിട്ട് സ്വാധീനമില്ലാത്തേൻ്റെ പേരില് തലയടിച്ച് നിലത്ത് വീഴും വീണ് കഴിയുമ്പം ഇന്നും കൂടെ ഇപ്പം നിലത്ത് തലയടിച്ച് വീണ് തലയെല്ലാം പൊട്ടി അങ്ങനെ ഒക്കെ ഉള്ള ഒരവസ്ഥയിൽ ആയിരിക്കും പിന്നെ രാത്രിക്കെപ്പഴും കിടക്കുമ്പോൾ വിശപ്പാന്നാണ് പറയുന്നത് വിശക്കുന്ന സമയത്തൊക്കെ ചാച്ചന് വിശക്കുവ വിശക്കുവ എന്ന് പറയുന്ന നേരം അമ്മ എഴുന്നേറ്റ് ചാച്ചന് ചോറ് വാരി കൊടുക്കും ചോറ് കൊടുക്കും അങ്ങനെ നല്ല രീതിയിലൊക്കെ അമ്മ നോക്കുന്നുണ്ട് ചാച്ചനെ പിന്നെ ഞങ്ങളേക്കൊണ്ടും പറ്റുന്ന പോലെ ഞങ്ങള് മക്കളും സഹായിക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഫാദറാണ് നല്ല രീതിയിലൊക്കെ ഞങ്ങള് ചാച്ചനേ ഞങ്ങളേക്കൊണ്ട് കഴിയുന്നത് പോലെ ഒക്കെ ചാച്ചനേ സഹായിക്കാറുണ്ട് പിന്നെ എന്നാ അങ്ങനെ നല്ല രീതിയിൽ ചാച്ചനേ ഞങ്ങള് നോക്കി സംരക്ഷിച്ച് പോരുന്നു ചാച്ചനേ കൂട്ടുകാരെല്ലാം കാണാൻ വരുന്നുണ്ട് ചിലരൊക്കെ കാണാൻ വരുമ്പം ചാച്ചന് നല്ല നല്ല കാര്യങ്ങളക്കെ പറഞ്ഞ് കൊടുക്കും ചാച്ചനോട് ബീഡി വലിക്കരുതെന്ന് പറഞ്ഞ് കൊടുക്കും മിനിങ്ങാന്നൊര് സുഹൃത്ത് വന്നിട്ട് ചാച്ചന് ബീഡി കൊണ്ട് കൊട്ത്തു അപ്പം അമ്മ അല്ലേ അമ്മ പ്രായവായ അമ്മയായ കൊണ്ട് അമ്മ പറഞ്ഞവര് കൊടുത്തിട്ട് പോട്ടേന്ന് പറഞ്ഞു അങ്ങനെ അവര് കൊടുത്തിട്ടൊക്കെ പോയി ചാച്ചൻ ബീഡി വലിച്ചെന്ന് ഇന്നലെ ഞങ്ങള് വന്നപ്പം അമ്മ പറഞ്ഞു അങ്ങനെ ഒക്കെ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പഴേത്തേക്ക് ഇത്രയും ഒക്കെ സംഭവിച്ചു